ഹലോ ആ വിൽട്ടൺ റെസ്റ്റോറൻറ്റല്ലേ അപ്പോൾ ഞാനവിടന്ന് കുറച്ച് മുൻപെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിങ്ങളാരായിരുന്നു സംസാരിക്കുന്നത് ആ ബഷീറിലെ ഓക്കെ ഓക്കെ ആ ആ അതായത് ബഷീറേ എനിക്ക് ആ സാധനെന്തായാലും ഇപ്പമിനി വേണ്ട കാരണന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടന്നൊരു അത്യാവശ്യമായിട്ട് ഒരു മരണമുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഞാൻ പോവാ അപ്പോൾ എനിക്കതിപ്പോൾ എന്താ പറയാ ഇപ്പോൾ ഞാൻ ഫുഡ് ഓർഡറ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണംന്ന് വെച്ചാൽ ഇവിടെ കഴിക്കാൻ ആരുവില്ല അപ്പോൾ അത് ഞാൻ റദ്ദാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു അയ്യോ പോന്നോ അവരെയൊന്ന് തിരിച്ച് വിളിക്കാൻ പറ്റുവോ കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ആ അതെയതെയതേ ആ അങ്ങനെയാണെങ്കിൽ അവരെയൊന്ന് തിരിച്ച് വിളിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം അത്യാവശ്യമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാനെന്തായാലും ഫുഡ് കഴിച്ചിട്ടായിരുന്നു പൂവൊളൂ പെട്ടന്നാണ് ഇവർ ഇപ്പം മരണാന്നിങ്ങനെ വിളിച്ച് പറഞ്ഞത് എൻ്റെ അടുത്തൊരു ബന്ധുവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും പൂവാണ്ടിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ അങ്ങനാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയോ അവരെയൊന്ന് വേഗം വിളിക്ക് ഇല്ലേൽ അവരിപ്പോൾ ഇവിടെ എത്തികഴിഞ്ഞിട്ട് ഇവിടുന്ന് വെറുതേ പോന്നയ്നും നല്ലതല്ലേ വഴിക്കിന്ന് നമ്മളിപ്പം പെട്ടന്ന് വിളിക്കുവാണെങ്കിൽ അവർ വേഗം അങ്ങ് തിരിച്ച് പൊയ്ക്കോളുല്ലോ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ വേഗം വിളിക്കേട്ടോ